കലാരൂപങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കലാരൂപങ്ങൾക്ക് വളരെ നല്ല പ്രാധാന്യം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കലയിലൂടെ ഒരു മനുഷ്യനാണ് മുന്നോട്ടേക്ക് വരുന്നത് ഓരോ മനുഷ്യർക്കും വളരെ നല്ല രീതിയിൽ ഒരു ആസ്വാദനം കൊടുക്കാൻ വേണ്ടിയിട്ട് കലകൾക്ക് സാധിക്കുന്നു നല്ല നല്ല രീതിയിൽ ആസ്വദിക്കുന്നവർക്ക് നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നു കലാരൂപങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കൃഷ്ണനാട്ടം അതു പോലെ തന്നെ സംഗീതം പടയണി ഓട്ടം തുള്ളൽ ഇതൊക്കെ കലാരൂപങ്ങളാണല്ലോ ഭരതനാട്യം ഇങ്ങനെയുള്ളതൊക്കെ കലാരൂപങ്ങളാണ് തെയ്യം ഇതൊക്കെ കലയാണ് അപ്പോൾ ഈ കലാരൂപങ്ങൾ കാണുമ്പം തന്നെ നമുക്ക് ഉള്ളിലൊരു കുളിർമയാണ് അത് തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഇപ്പം തെയ്യോക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറുപ്പം മുതലേ അവരുടെ കുട്ടികളെ അവർ ട്രെയിൻ ചെയ്യിക്കും ഈ തെയ്യത്തിൻ്റെ ആൾക്കാർ തന്നെ അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനങ്ങനെ തലമുറയായിട്ടാണ് ഈ തെയ്യം എല്ലാ കലാരൂപങ്ങളും ഇങ്ങനെ കൈമാറിയിട്ട് വരുന്നത് ഇത് മനുഷ്യർക്ക് നല്ല സന്തോഷം ഉണ്ടാക്കുന്നു കാഴ്ചവെക്കുമ്പോൾ ഇതിനോട് ഇൻ്ററെസ്റ്റ് കാണിച്ചാൽ ഓരോരുത്തരുടെയും ജീവിതവും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നു അങ്ങനെയാണ് പറയാനുള്ളത്